ഞാനൊരു എട്ടാം ക്ലാസ്സൊക്കെ തുടങ്ങിയപ്പോൾ ആണ് വരയ്ക്കാൻ ഇന്ററെസ്റ്റ് കാണിക്കുന്നത് അതുകഴിഞ്ഞ് ഞാൻ ഡ്രോയിങ്ങ് ക്ലാസ്സിലൊക്കെ ചേരാറുണ്ടായിരുന്നു പോവാറുണ്ടായിരുന്നു വരയ്ക്കാനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ വരയ്ക്കുന്ന സ്കൂളിലെ മത്സരങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അങ്ങനത്തേതിലൊക്കെ പങ്കെടുക്കാറുണ്ട് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വരയ്ക്കാൻ പിന്നെ വരയ്ക്കുന്ന എല്ലാ കലാകാരന്മാരേയും എനിക്കിഷ്ടമാണ് എല്ലാവരെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെന്താണെന്ന് വച്ചാൽ വരയ്ക്കുന്നത് നല്ലൊരു കഴിവാണല്ലോ നല്ല നല്ല ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ പ്രകൃതിയോടിണങ്ങുന്ന ചിത്രങ്ങൾ വരക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം